ഹലോ ആ ഞാൻ തങ്കച്ചനാണ് ആ ഒന്നുമില്ല എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നോ

ആ ആ ആ ആ ആ ഊവ്വ് ഊവ്വ് ഉം ഉം ഉം ഉം എനിക്കൊരു എനിക്കൊരു ചെറിയ പ്ലോട്ട് വേണമായിരുന്നല്ലോ സാറേ ഒരു പത്ത് ഒരു പത്തി പ ആ ഒരു പത്തിരുപത് സെന്റ് മതി ഇരുവത് സെന്റ് ആ ആ നമുക്ക് എനിക്കെന്താണെന്നുവച്ചുകഴിഞ്ഞാല് ബിൽഡിങ് പണിയുക ബിൽഡിങ് പണിതിട്ട് അത് റെന്റിനു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോഴിനി ആരെങ്കിലും വന്നുകഴിഞ്ഞാലും മറിച്ചുവില്ക്കാമല്ലോ അങ്ങനൊരു അങ്ങനൊരു ലക്ഷ്യം വച്ചതുകൊണ്ടാണ് നമുക്ക് ആ ആ ആഹ് ആഹ് ആഹ് ആ ഊവ്വുവ്വുവ്വ് ആ ആ ഊവ്വുവ്വുവ്വ് ഉം ആ ഊവ്വുവ്വുവ്വ് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ വെള്ളമൊക്കെ വെള്ളം വെള്ളവും കറൻ്റെടുക്കാനുള്ള സൗകര്യവുമൊക്കെ ഉണ്ടോ ആ ഊവ്വുവ്വ് ആ ആ ആ ഉവ്വ് ആ ഊവ്വുവ്വ് ഉം ആ ഊവ്വ് ഉം ഉം ആ ഊവ്വുവ്വുവ്വ് ഉം ഉം ഉം ഉം ആ ഊവ്വുവ്വ് ആ ഊവ്വ് ഉം ഉം ആ ഊവ്വ് ആ ആ ഊവ്വുവ്വ് ആ ഊവ്വുവ്വ് അപ്പോള് പറഞ്ഞാല് ഒന്നുരണ്ടു കക്ഷികള് നമുക്കുണ്ട് ഇത്തിരി കൃഷി ഭൂമി എടുത്തിട്ട് എടുക്കാനുള്ള താല്പര്യത്തിലുള്ള ആള് നില്പുണ്ട് കേട്ടോ അതും ആ ആ ഉവ്വുവ്വ് ഉം ആ ആ ഉവ്വ് ഉവ്വ് ആ ഊവ്വുവ്വുവ്വ് ഉം ഉം ഉം ആ ഉവ്വുവ്വ്വ്വ് അപ്പോള് നമുക്കതൊന്നാലോചിക്കാം സാറേ ആലോചിക്കാം എന്താണെന്നുവച്ചുകഴിഞ്ഞാല് ഒന്നുരണ്ടു കക്ഷികളുണ്ട് നമ്മള്ക്ക് ഒന്നുരണ്ട് കക്ഷികള് നമ്മള്ക്കു നില്പ്പുണ്ട് ആ ഒപ്പം നമ്മള്ക്ക് എന്തേലും നമുക്കും ലാഭം കിട്ടണമല്ലോ നമുക്കും ലാഭം കിട്ടണമല്ലോ അപ്പോള് ബ്രോക്കര് കാശു വാങ്ങാവുന്നവന്മാരല്ല അപ്പോള് കച്ചവടത്തില് നമുക്കുള്ള ലാഭമാണു നമുക്ക് ഒരു പ്രതീക്ഷയുള്ളതേ ഉം ഉം ഉം ഇല്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഈ കച്ചവടത്തിലുള്ളതാണല്ലോ അതൊന്നും ഒരു കുഴപ്പമുള്ള കേസല്ല ഉം ഉം ഉം ആ ഊവ്വ് ഊവ്വ് ഉം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉം ഓക്കെ ആ ഊവ്വുവ്വ് ഉം ഉം ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഊവ്വുവ്വ് ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം വിളിച്ചിട്ടേ വരുന്നുള്ളൂ അപ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും കൂടി ഉണ്ടോ എന്നു നമുക്കൊന്ന് ആലോചിച്ചു വയ്ക്കണം സൗകര്യപ്രദമായിട്ടുള്ളതെ ഒരെണ്ണം മാത്രം കണ്ടുകഴിഞ്ഞാലേ നമ്മുക്കൊരു ആണോ വീടുണ്ടോ കെട്ടിടമുണ്ടോ ഇതിന്റെ അകത്ത് ആണ് ആണ് ഉവ്വ് ഉവ്വ് ആ ആ ആ ആ ആ ഊവ്വുവ്വ് ഉം ആ ഊവ്വുവ്വ് ആ ഓക്കെ ഓക്കെ ആ ഊവ്വുവ്വ് ആ ആ എത്ര റേറ്റെങ്ങനെ വരും അത് ആ ഊവ്വുവ്വുവ്വ് ഉം ഉം ഉം എന്നാലും നമ്മള് അ അടുത്തുവരുമ്പോള് മര്യാദരീതിയിലേക്കു വരില്ലേ കാര്യങ്ങള് അപ്പോള് ഉം ആ ഊവ്വുവ്വുവ്വ് ആ ഊവ്വുവ്വുവ്വ് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഊവ്വുവ്വ് ആ ഊവ്വുവ്വുവ്വ് ആ ഊവ്വുവ്വുവ്വ് ഉം ഉം ഉം ആ ആ ആ ആ ആ ആ ആ ആയിക്കോട്ടെ ഞാൻ ഞാൻ വരുമ്പോള് ഞാന് ഒന്നിച്ച് ഒന്നിച്ചു വന്നോളാം ഒന്നിച്ചു വരാനുള്ള സംവിധാനം ചെയ്തോളാം കേട്ടോ ആ ഓക്കെ അതെ അതെ അതെ അതെ അതെ അങ്ങനെ ചെയ്താം മതി അത് ഉം ഓക്കെ ഓക്കെ ആ ആ ആ ഓ ആ ആ ആ നമ്മള്ക്കു നോക്കാം സാറേ അതു നോക്കാം നമുക്ക് കേട്ടോ എല്ലാം നോക്കി ചെയ്യാമത് ഉം ഉം ഉം വേറെന്നാ വിശേഷമുള്ളത്